സന്ദർശിക്കാറുണ്ടോന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിയത്തിലൊക്കെ പോവാറുണ്ട് അങ്ങനെ അങ്ങനെ പോവാണ്ട് ഞാൻ വേറെ ഇവിടെയിങ്ങനെ ആരുടേയും കലകൾ കാണാനൊന്നും പോയിട്ടില്ല അത് സന്ദർശിക്കുമ്പോഴുള്ള അനുഭവം നമ്മൾക്കത് നമ്മൾക്കങ്ങനത്തൊരു ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾക്കങ്ങനത്തൊരു കഴിവില്ലല്ലോ ഒരുപക്ഷെ നമ്മൾക്കങ്ങനത്തൊരു കഴിവുണ്ടാകാം നമ്മുടെ ഉള്ളിലെവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകാം ബട്ട് നമുക്കറിയാത്തയായിരിക്കാം ബട്ട് എനിക്കങ്ങനെയൊരു കഴിവുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്യാനുള്ളൊരു ഇതും തോന്നിയിട്ടില്ല പക്ഷെ നമുക്കങ്ങനെ ഒരു കലയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും ഓരോരുത്തർ ചെയ്യുന്ന കാണുമ്പോൾ നമ്മൾക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനൊരു ഫീലിങ്ങ് അപ്പോൾ ഉണ്ടാവാറുണ്ട് വേറെ ഫീലിങ്ങ്സ് ഒന്നുമില്ല നമ്മൾക്ക് അങ്ങനെ ഒരു കഴിവ് തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ഫീലിങ്ങ്സ് അവിടെ ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാവർക്കും ഒരേ കഴിവ് ദൈവം കൊടുക്കില്ലല്ലോ ഒരാൾക്ക് അയാളാവാനേ കഴിയുള്ളൂ അയാൾക്കേതൊക്കെ കഴിവുണ്ടോ ആ കഴിവൊക്കെ അയാളിലുണ്ടാവും ഓരോരുത്തർ ഈ ലോകത്തുള്ള ഏതൊരാൾക്കും ഓരോ കഴിവുണ്ടാവാറുണ്ട് എന്തായാലും അപ്പോൾ ദൈവം എനിക്കായി മാറ്റിവച്ച വേറൊരു കഴിവുണ്ടാവാം അപ്പം അതുപോലെ മറ്റൊരാൾക്ക് കഴിവ് കൊടുത്തിട്ടുണ്ടാവില്ലേ എന്നെപോലെ അപ്പം അയാൾക്കും ഇതൊരു വിഷമമായിരിക്കാം അതുകൊണ്ട് സ്വന്തം കഴിവിൽ സ്വന്തം ത്രിപ്തിപ്പെടുക